അഞ്ച് ആറ് രണ്ടായിത്തി ഒന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി രണ്ട് ഇരുപത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തിയാറ് എട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് അഞ്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ്